ഞാൻ ചെറുതിലെ അങ്ങനെ ഭക്ഷണമൊന്നും പാകം ചെയ്തിട്ടില്ല കാരണം ഞങ്ങളുടെ വീട്ടിൽ അച്ഛൻ അമ്മ പിന്നെ ചേച്ചിമാർ ഞങ്ങൾ ഏഴ് മക്കളൊക്കെ ഉള്ളത് കാരണം എനിക്ക് അങ്ങനെ പാചകം ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല പിന്നെ എന്നെ കല്യാണം കഴിച്ച് കൊണ്ട് വന്നപ്പോഴാണ് ഇവിടെ പാചകം ചെയ്തത് അമ്മുമയാണ് ഇവിടെ ഉണ്ടായത് ഞാൻ അമ്മ വീട്ടിൽ നിന്നത് കാരണം അമ്മുമയാണ് എന്നെ കല്യാണം കഴിച്ച് കൊണ്ട് വന്നപ്പോൾ അമ്മുമയുടെ അടുത്താണ് വന്നത് അപ്പോൾ അമ്മൂമ്മ ഓരോന്നും പറഞ്ഞ് തരും ഇപ്പം തേങ്ങ അരയ്ക്കാനാണെങ്കിൽ വടിയെ അരയ്ക്കണ്ട പതുക്കെ അരച്ചാൽ മതി വടിയേന്ന് പറഞ്ഞാൽ ശരിക്കും നൈസായിട്ട് അരയ്ക്കണ്ട എന്നൊക്കെ ഇന്നെ പറണെ പിന്നെ കല്യാണം കഴിഞ്ഞ് പിറ്റെ ദിവസം തന്നെ അവർ എനിക്ക് കുറച്ച് മല്ലിയും മുളകും തേങ്ങയും ഒക്കെ അങ്ങട് വറുത്ത് അങ്ങട് തന്ന് അമ്മീമെ അരയ്ക്കാൻ പറഞ്ഞു ഞാൻ സത്യത്തിൽ ഇന്നേവരെ അമ്മീമെ അരച്ചിട്ടുണ്ടായില്ല ഞാൻ നിന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് അരച്ച് കൊണ്ടിരിക്കുമ്പം എൻ്റെ ബന്ധുക്കൾ ഞങ്ങളുടെ ആയിത്തെ വിരുന്നിന് വന്നേക്കുന്നൊള്ളെ ബന്ധുക്കളൊക്കെ പട കൂടി പറഞ്ഞു അരയിലാണ് ഗുണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാനങ്ങനെ വിയർത്ത് വിളറി ഒരു കണക്കിന് ഞാൻ അരച്ചു ഒപ്പിച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ എല്ലാവരുടെയും കൂടെ കൂടി നിന്ന് ഒന്ന് ചിക്കൻ കറി ഉണ്ടാക്കി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞ് ബന്ധുക്കളൊക്കെ പട കൂടി വന്ന് ഒരു കോഴിയെയാണ് ശരിക്കും പറഞ്ഞാൽ കൊന്നത് അ പക്ഷെ ബന്ധുക്കളൊക്കെ പട കൂടി കോഴി കറിയൊക്കെ കൂട്ടി അരച്ച എനിക്കൊന്നും കറിയും ഉണ്ടായില്ല ചോറുണ്ണാൻ ഇരുന്നിട്ട് എൻ്റെ അമ്മയും ചേച്ചിയൊക്കെ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഭക്ഷണം കഴിക്കാൻ ഇരുന്നപ്പോൾ ഓ എൻ്റെ മോൾ കഷ്ടപ്പെട്ട് കറിയുണ്ടാക്കിയിട്ട് മോൾക്കില്ലല്ലോ എന്ന് അവർക്ക് വിഷമമായിരുന്നു അങ്ങനെയൊക്കെയാണ് പിന്നേ പിന്നെ പിന്നെ ഞാൻ കറി ഉണ്ടാക്കാനൊക്കെ പഠിച്ചു ചോറ് വയ്ക്കാൻ പഠിച്ചു അരി വാർക്കാൻ പഠിച്ചു അങ്ങനെ എല്ലാ കാര്യങ്ങളും അമ്മാമയല്ലെ ഇവിടെ ഉള്ളത് ആ കാര്യം അമ്മമ്മ ഒന്നും ആദ്യമൊക്കെ തൊടീക്കില്ലായിരുന്നു പിന്നെ പിന്നെ ഞാൻ എല്ലാം ചെയ്ത് അരി വയ്ക്കാനും കറി വയ്ക്കാനും എല്ലാം പഠിച്ച് കൃഷിയുള്ള വീടായിരുന്നു എൻ്റെ അപ്പോൾ കൃഷിയുള്ളത് കാരണം എല്ലാം വളപ്പിൽ നിന്ന് തന്നെ എടുത്തുള്ള ഉൽപ്പന്നങ്ങളുണ്ടാക്കി നല്ല രീതിയിൽ കശുമാങ്ങ കശുവണ്ടി പറിച്ച് പച്ച കശുവണ്ടി മൂക്കാത്ത കശുവണ്ടിയും പറിച്ച് കൊണ്ട് വരാം എന്നിട്ട് ഈ കശുവണ്ടി പറിച്ച് കൊണ്ട് വന്നിട്ട് അത് മല്ലിയും മുളകും തേങ്ങയും കൂടി വറുത്തരച്ച് കശുവണ്ടി കറിയുണ്ടാക്കും അതൊക്കെ നല്ല ബെസ്റ്റ് കറികളായിരുന്നു പിന്നെ ഞാൻ എല്ലാം പഠിച്ചു ഇപ്പം പിന്നെ അമ്മാമ്മയും പോയി എല്ലാവരും എൻ്റെ ഭർത്താവും മരിച്ചു ഇപ്പോൾ എന്നാൽ ഇപ്പോൾ പിന്നെ ഞാൻ ചെയ്യേണ്ട എൻ്റെ മക്കൾ മരുമക്കളൊക്കെ ആയിട്ട് വീട്ട് പണിയൊക്കെ ചെയ്യുകയാണ്